ഞാനും നൃത്ത മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഞാൻ നൃത്ത മത്സരത്തിൽ ചെറു പ്രായത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷെ കല്ല്യാണം കഴിഞ്ഞതിനുശേഷം മാതൃവേദി എന്നു പറഞ്ഞൊരു സംഘടനയിൽ വന്നതിനു ശേഷം അല്ലെങ്കിൽ കുടുംബക്കുട്ടായ്മ സെക്രട്ടറി എന്നൊരു സ്ഥാനം വഹിച്ചതിനു ശേഷം ഞാൻ നൃത്ത മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെക്കൂടി ഇത് ആഘോഷിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾ കുടുംബ കൂട്ടായ്മ വാർഷികത്തിനു ഞാൻ ആദ്യമായിട്ട് നൃത്തം ചെയ്യുന്നത് ഞങ്ങൾക്കിവിടൊരു കമ്പനിയുണ്ട് ആ കമ്പനിയിൽ ഒരു സംഘമുണ്ട് ആ സംഘത്തിൻ്റെ വാർഷികത്തിനു വേണ്ടി തിരുവാതിര കളിച്ചാണ് ആദ്യമായിട്ട് ഞാൻ നൃത്തമത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു പക്ഷേ ആദ്യമായിട്ടൊരു മത്സരത്തിൽ ഡാൻസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആ തിരുവാതിര മത്സരത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം വളരെ മനോഹരമായിട്ട് ആ തിരുവാതിര മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി അതിനു ശേഷം ഞങ്ങളുടെ ഇടവക വികാരിയച്ഛൻ്റെ കുർബാന ചൊല്ലിയതിനു ശേഷം അൻപത് വർഷമായതിൻ്റെ വാർഷികം ആഘോഷിച്ച വേളയിൽ ആ തിരുവാതിര വീണ്ടും ഞങ്ങൾ ഇടവക സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു അതാണ് രണ്ടാമതായിട്ട് ഞാൻ അവതരിപ്പിച്ച ഒരു നൃത്തം അതിനുശേഷം പിന്നെ കുടുംബ കൂട്ടായ്മ വർഷികത്തിന് നൃത്തരൂപം നൃത്തം ഡാൻസ് കളിച്ചിട്ടുണ്ട് മാതൃവേദിയിടെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റിയില്ലെങ്കിൽപ്പോലും എനിക്കും ഡാൻസ് കളിക്കാൻ പറ്റും എന്ന് ഒരു ആത്മവിശ്വാസം വന്നത് ഇതിനു ശേഷമാണ് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയപ്പോൾ എൻ്റെ മക്കൾ പ്രോഗ്രാം കാണാൻ വന്നതിനുശേഷം മുമ്പിൽ ഇരുന്ന് അതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ ഡാൻസ് നല്ലതായിരുന്നു എന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചത് വളരെ മനോഹരമായിട്ട് എനിക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഡാൻസിൻ്റെ ബാല്യപാഠങ്ങളൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിനു ശേഷമാണ് അതിനുമുമ്പ് അതിനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് എൻ്റെകൂടെ കുറച്ച് ചേച്ചിമാരുണ്ട് അവർ എല്ലാവരും കൂടെക്കൂടി എന്നെ ഡാൻസ് പഠിപ്പിച്ച് മത്സരങ്ങൾക്ക് കയറ്റി സമ്മാനം മേടിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു അവസരമാണ് കാരണം ഇടുക്കി രൂപതയിൽ മാതൃവേദിയിലെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുകയെന്നു പറയുന്നത് വളരെ മനോഹരമായൊരു കാര്യമാണ് വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് ഈ അനുഭവത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ നമ്മളിപ്പോൾ ജീവിതത്തിൽ എന്ത് അവസ്ഥകൾ വന്നാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മളെ ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്നത് എന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും കൂടെക്കൂടി ആടിപ്പാടി ആഘോഷിച്ച് ഒരു വീട്ടിലൊത്തുകൂടി അല്ലെങ്കിൽ ഒരു പള്ളിയിലൊത്തുകൂടി ഡാൻസ് കളിച്ച് ഡാൻസിൻ്റേതായ എല്ലാ കാര്യങ്ങളും ചെയ്ത് മനോഹരമായിട്ട് മുന്നോട്ടു പോകുമ്പോൾ അത് വളരെ ഭംഗിയായിട്ടും വളരെ മനോഹരമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നൃത്തമത്സരങ്ങൾ ഇനിയും എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ നൃത്തമത്സരത്തിന് വന്നു കഴിഞ്ഞാൽ പങ്കെടുക്കും എന്നു തന്നെയാണ് എൻ്റെ തീരുമാനം അങ്ങനെ പങ്കെടുക്കണം എന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത് നമ്മൾ തന്നെ കണ്ടെത്തെണം അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെയും ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ

ഇടയ്ക്ക് ഹസ്ബൻഡ് വന്നു കൂടാറുണ്ട് ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പണ്ട് മത്സരങ്ങൾക്കൊക്ക പങ്കെടുക്കുന്നതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഡാൻസൊന്നും കളിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തതിനു ശേഷമാണ് ഞങ്ങളെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഡാൻസ് കളിക്കാനും പാട്ടു പാടുവാനും ഒക്കെ തുടങ്ങിയത് അതൊക്കെ വളരെ സന്തോഷവും ആത്മാഭിമാനവും തോന്നുന്ന ഒരവസരമാണ്